നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളൊക്കെ പ്രായമാകുമ്പോൾ അവരെ നോക്കേണ്ട ഒരു കടമ അല്ലെങ്കിലൊരു ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തർക്കും ഉള്ളതാണ് അത് നമ്മുടെ എല്ലാം ഒരു അവകാശമായിട്ട് നമ്മൾ മനസ്സിൽ കരുതണം അവരെയൊക്കെ അവരുടെ നല്ല കാലത്ത് അവരൊക്കെ നമ്മളെ പൊന്ന് പോലെ നോക്കിയപ്പോൾ നമ്മളെകൊണ്ട് ആഹാരം അവർ നടത്തിച്ച നമ്മളോക്കെ ആഹാരം തന്നപ്പോഴും നമ്മളെ സ്കൂളിൽ വിട്ടപ്പോഴും എല്ലാം അവർ നല്ല ആത്മാർഥമായിട്ടാണവർ നമുക്ക് എല്ലാം നമ്മുടെ കുട്ടിക്കാലത്തവർ നമുക്ക് ചെയ്ത് തന്നിട്ടുള്ളത് അപ്പോൾ അവർ രോഗിയായി കിടക്കുമ്പോഴോ അല്ലെങ്കിൽ അവർ ആ വാർധക്യ സമയത്തോ അവരുടെ വാർധക്യ സമയത്തോ നമ്മൾ അവരെയും നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് അത് നമ്മൾ എത്ര എത്രയൊക്കെ തിരക്കിലായിരുന്നാൽ പോലും എത്രയൊക്കെ വലിയ ആളായൽപ്പോലും നമ്മളത് ചെയ്യേണ്ട കാര്യം തന്നെയാണ് എന്നാൽ ഇന്നത്ത പൊതുവെ ഉള്ള ഒരു ഈ ഒരു കാലഘട്ടം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛനമ്മമാർക്കൊക്കെ ചിലർക്കൊക്കെ എങ്കിലും ഒരു ഭാഗമാകൻ ഒരു ഭാരമാകാറുണ്ട് ഇന്നത്തെ കാലത്ത് സ്വത്തും പണവുമൊക്കെ അച്ഛനമ്മമാരിൽ നിന്നും തട്ടിയെടുത്തിട്ട് വളരെ വിദഗ്ദമായി തട്ടിയെടുത്തിട്ട് അവരെ വൃദ്ധസദനങ്ങളിലും അല്ലെങ്കിൽ തെരുവുകളിലും അല്ലെങ്കിൽ തിരക്കേറിയ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ പള്ളി മുറ്റത്തോ ഒക്കെ ഉപേക്ഷിച്ച് പോകുന്നവർ ഇന്ന് നമുക്കിടയിൽ ധാരാളമായിട്ടുണ്ട് എന്നാലും ഒരു മുപ്പത് ശതമാനം പേരും മുപ്പത് ശതമാനം പേരും അച്ഛനമ്മമാരെ ഒരു കുഞ്ഞു കൊച്ച് കുട്ടിയെ നോക്കുന്ന ലാഘവത്തോട് കൂടി തന്നെ നോക്കുന്നവരും ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് ഇന്നത്തെ ഈ തിരക്കേറിയ കാലത്തും നമ്മുടെ വീട്ടിൽ പ്രായമായ ആളുകളുമായിട്ട് കുറച്ച് സമയം എങ്കിലും ചിലവഴിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ടൊക്കെ തന്നെ കുറച്ച് സമയം എങ്കിലും ചിലവഴിക്കുകയും അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടോ അവൾ അവർക്ക് പരാതിയോ പരിഭവമോ ഒക്കെ ഉണ്ടോ എന്ന് തിരക്കി അവർക്ക് മരുന്ന് കഴിയാറായോ എന്നൊക്കെ ഒരു സൗഹൃദ സംഭാഷണത്തിലൂടെ തന്നെ ചോദിച്ചറിയണം കുറച്ച് ദിവസം കൂടുമ്പോഴൊക്കെ അവരെ കൊണ്ടൊന്ന് പുറത്തേക്ക് പോവുകയും അവരെ സന്തോഷിപ്പിക്കാവുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും വേണം എല്ലാ ദിവസവും കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് ഒരു നേരമെങ്കിലും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും വേണം അതൊക്കെ നമ്മുടെ പ്രായമായവരിൽ സന്തോഷമുളവാക്കുന്ന കാര്യങ്ങളാണ്